ഹലോ ബ്രദർ ഇപ്പോൾ നിലവിലുള്ള മൊബൈൽ ഡാറ്റയുടെ പ്ലാനിങ്ങിൽ എനിക്ക് ചെറിയൊരു അതൃപ്തിയുണ്ട് ചെറിയൊരു താല്പര്യക്കുറവുണ്ട് കാരണം എന്താ വച്ചാൽ ഇപ്പോൾ നിലവിലുള്ള ഡാറ്റയുടെ പ്ലാനിംഗെന്നു പറഞ്ഞാൽ അത് പെട്ടന്ന് തീർന്നു പോവുകയാണ് അതല്ലെങ്കിൽ ഒന്ന് കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് ഉള്ളത് അപ്പോൾ വല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്സ്ഫോം ഏതിലെങ്കിലുമൊക്കെ ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടന്ന് തീരണ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ പുതിയൊരു നല്ല ഡെവലപ്പായിട്ടുള്ള തീരാത്ത കൂടുതൽ സമയം നിലനിൽക്കുന്ന ഒരു പ്ലാനിലേക്ക് മാറാനെന്താണ് താല്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ പുതിയൊരു പ്ലാനെന്നു വച്ചാൽ കൂടുതൽ ഡാറ്റ ലഭിക്കുന്നതും കൂടുതൽ എസ് എം എസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഒരു ന്യൂ ആയിട്ടുള്ള ഒരു ഡാറ്റ ലഭിക്കാനാണ് ഞാൻ എന്താണ് താല്പര്യപ്പെടണത് അപ്പോൾ താങ്കളുടെ ഒരു സഹകരണം താങ്കങ്ങളുടെ ഒരു സഹായം കൂടി ഇതിൽ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ താങ്കളുടെ ഒരു അഭിപ്രായം കൂടി ഇതിൽ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതു ഡാറ്റയാണ് ഏതു പ്ലാനാണ് എടുക്കേണ്ടത് ഈ ഒരു സിമ്മിൽ ഏത് പ്ലാനാണ് ഏറ്റവും ഉത്തമം എന്നുള്ളത് താങ്കളുടെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അതെനിക്ക് സഹായകരമാവും അപ്പോൾ ഓക്കെ താങ്ക് യു